ദിവസം മുഴുവൻ നമുക്ക് വെള്ളം ആവശ്യം വരുന്ന വ്യത്യസ്ത അതായത് വെള്ളം ആവശ്യമുള്ള വ്യത്യസ്ത ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം രാവിലെ എണീച്ചപാടെ നമ്മൾ മെയിനായിട്ട് ചെയ്യുക പല്ല് തേക്കും പല്ല് തേക്കുമ്പം നമുക്ക് വേണം വെള്ളം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ബാത് റൂം പോകും ബാത് റൂം പോകും പിന്നെ ബാത് റൂം പോകുമ്പോൾ നമുക്ക് എന്തായാലും നിർബന്ധമായിട്ടും വെള്ളം വേണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരെ നമ്മൾ ഒരു ഗ്ലാസ് കാപ്പി വെക്കാൻ വേണ്ടി കാപ്പി അതായത് കാപ്പി വെക്കാൻ വേണ്ടി പാത്രമെടുക്കും അതിന് നമുക്ക് വെള്ളം വേണം പിന്നെ എന്ന് വെച്ചാൽ ചോറുവെക്കും കറി വെക്കും രാവിലത്തെ കടികൾ ഉണ്ടാക്കും പിന്നെ ഇതൊക്കെ കഴിച്ച് കഴിയുമ്പം നമുക്ക് കൈ കഴുകാൻ വെള്ളം വേണം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് പിന്നെയും ചായ അതേപോലെത്തന്നെ നമ്മുടെ ഓരോ റൂട്ടീൻ ആണല്ലോ വൈകുന്നേരം നമ്മൾ ചായ കുടിക്കുകയാണ് വൈകുന്നേരം നമുക്ക് കാപ്പി കുടിക്കേണ്ടി വരും കാപ്പി കുടിക്കണമെങ്കിൽ നമുക്ക് വെള്ളം വേണം അതുപോലെ രാത്രി ചോറ് തിന്നണമെങ്കിൽ നമുക്ക് വെള്ളം വേണം പിന്നെ ഇടക്ക് ഇടക്ക് നമുക്ക് ഇങ്ങനെ വെള്ളം ദാഹിച്ചുകൊണ്ടേയിരിക്കും അപ്പം നമുക്ക് വെള്ളം കുടിക്കേണ്ടി വരും പിന്നെ അതായത് നമുക്ക് ഒന്ന് കൈ കഴുകണം എങ്കിൽ ഒന്ന് കാല് കഴുകണം എങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി നമ്മൾ ചെളി ചവുട്ടി അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയി വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളം വേണം പിന്നെ നമ്മൾ രാത്രി രാത്രി ആണെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ നമുക്ക് കുളിക്കണമെങ്കിൽ നമുക്ക് വെള്ളം വേണം അപ്പം നമുക്ക് പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യം ഒന്നും പറഞ്ഞാൽ തീരില്ല ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ട് വെള്ളം കൊണ്ട്